ഇതുവരെ ആർക്കും കൈ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള യാതൊരു വിധ വസ്തുക്കളും വസ്ത്രങ്ങളും സമ്മാനമായി ഞാൻ നൽകിയിട്ടില്ല എല്ലാം തന്നെ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് കാരണമെന്തെന്നാൽ എൻ്റെ പ്രദേശത്തിന് സമീപം ഒരു നെയ്ത്ത് സ്ഥലമോ അല്ലെങ്കിൽ നെയ്ത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളോ ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല അതുകൊണ്ടു തന്നെ ഞാൻ നെയ്ത്തിൻറ്റേതായ രീതിയിലുള്ള വഴികളിലൂടെ സഞ്ചരിച്ച് ആ വസ്ത്രങ്ങൾ ഒരിക്കലും കൈ കൊണ്ട് ചെയ്തു നിർമ്മിച്ച് നൽകിയിട്ടില്ല എന്നാൽ ഞാൻ വസ്ത്രങ്ങൾ മെറ്റീരിയലുകൾ വാങ്ങിയിട്ട് അത് തയ്യൽ മെഷീനിൽ തയ്ച്ച് നൽകിയിട്ടുണ്ട് അല്ലാണ്ട് വസ്ത്രങ്ങൾ നെയ്ത് നൽകിയിട്ടില്ല